എൻ്റെ പ്രിയപ്പെട്ട കായികതാരം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കർനെ ആണ് ഇഷ്ടം പിന്നെ വിരാട് കോഹ്ലിനെ ഇഷ്ടമാണ് രോഹിത് ശർമേനെ ഇഷ്ടമാണ് പിന്നെ എം എസ് ധോണിനെ ഇഷ്ട്ടാണ് പിന്നെ അതുപോലെ ഇപ്പം ക്രിക്ക ഫുട്ബോളിൽ ആണെങ്കില് മെസ്സിനെ ഇഷ്ടമാണ് നെയ്മറിനെ ഇഷ്ടമാണ് റൊണാൾഡോനെ ഇഷ്ടാണ് ഞാൻ എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലും പിന്നെ ഇതാണ് കാണാറ് ഫുട്ബോളാണ് കാണാറ് പിന്നെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോളിൽ തന്നെ നമുക്ക് പറയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കറുത്ത മുത്താണ് ഐ എൻ വിജയൻ മികച്ച ഗോൾകീപ്പർ ഒക്കെ ആയിരുന്നു പിന്നെ ഹോക്കി ഹോക്കിയൊക്കെ നല്ലൊരു പരിപാടിയാണ് ഇപ്പോഴത്തെ ഹോക്കി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീജേഷ് ആണ് പി ആർ ശ്രീജേഷ് ആണ് നിലവിലെ ക്യാപ്റ്റൻ പിന്നെ ഷട്ടിൽ ബാറ്റ് ഷട്ടിൽ ബാറ്റ് കളി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എക്കെ അടിപൊളിയാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടം ഫുട്ബോളുകളി കാണാനാണ് ഞാൻ ഐ പി എൽ ഒക്കെ വരുമ്പോൾ കാണാറുണ്ട് സ്ഥിരമായിട്ട് ഇഷ്ടം ഫുട്ബോളാണ്